ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ സ്കൂൾ ജീവിതമാണ് സ്കൂൾ എന്നുവച്ചാൽ ഒരു നാലിലും അഞ്ചിലും ഒക്കെ പഠിക്കുമ്പോൾ നല്ല മഴ മഴയൊക്കെ പെയ്യുമ്പോൾ കുടയൊക്കെ ചൂടി കൂട്ടുകാരൊത്ത് മഴയൊക്കെ നനഞ്ഞ് കുട ചൂടിയാലും ഫുൾ നഞ്ഞിട്ടൊക്കെ സ്കൂളിൽ പോയി ഇരിക്കുന്നതും അപ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു അതുപോലെ ക്ലാസിലെ കൂട്ടുകാരും കുറുമ്പാണല്ലൊ എല്ലാവർക്കും അപ്പോൾ നല്ല കുറുമ്പും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്ന ഒരു സമയമാണല്ലൊ അപ്പോൾ ക്ലാസ്സിലെ ടീച്ചേഴ്സിനോട് നമ്മളുടെ പരാതി പറഞ്ഞ് ടീച്ചേർസ് നമ്മളെ ചീത്ത പറയുന്നതും അതൊക്കെ ആ ഒരു ആ ഒരു ഓർമയിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ആ ഒരു ഓർമ്മ ഒരിക്കലും മറക്കാത്തൊരു ഓർമയാണ് സ്കൂൾ ജീവിതം എന്ന് വെച്ചാൽ ഒരു നല്ല ജീവിതമായിരുന്നു അതുപോലെ ഇപ്പോൾ അവിടെ പഠിച്ച കൂട്ടുകാരൊക്കെ ഇപ്പോഴും വിളിക്കും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു അങ്ങോട്ട് തിരിച്ചുപോയാൽ എന്നൊരു തോന്നൽ ഉണ്ടാകാറുണ്ട് ആ ആ ഒരു സമയമൊക്കെ ആണെങ്കിൽ എന്ന് കൊതിച്ചുപോകുന്നോരു സമയമാണിപ്പം അതുപോലെ മനുഷ്യർ എല്ലാവരും അങ്ങനെതന്നെ ആണല്ലോ കഴിഞ്ഞു പോയ ഇപ്പം നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം കുട്ടിക്കാല ഓർമ്മകൾ കുട്ടികാലത്തെ ഓർമ്മകള് പിന്നീട് ജോ ജീവിക്കണ്ടേ ഓരോ തിരക്കുപിടിച്ച ജോലിൻ്റെയും അതുപോലെ ഫാമിലിയിൻ്റെ പുറകില് ഓടുന്നൊരു സമയമാണ് അതുകൊണ്ടുത്തന്നെ കുട്ടിക്കാലം നമുക്ക് മറക്കാൻ പറ്റാത്ത ആരി ആ കുട്ടിക്കാലം തന്നെ മതി എന്നുള്ളൊരു തോന്നൽ ആണ് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്